വലിയ രീതിയിലുള്ള ഗാനാലാപനമൊന്നും ഇല്ലെങ്കിൽ കൂടിയും എന്തെങ്കിലും ഒരു പാട്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാല് അതിൻ്റെ പാട്ട് വീണ്ടും വീണ്ടും കേൾക്കുകയും അതിൻ്റെ ലിറിക്സ് പിന്നെ നമ്മുടെ മനസ്സിലേക്ക് പതിക്കുകയും അതനുസരിച്ച് വെറുതെ മൂളിപ്പാട്ടോടുകൂടി പാടുകയും ചെയ്യാറുണ്ട് സ്റ്റേജുകളിലൊന്നും പാടാറില്ല എങ്കിലും വെറുതെ പാടി പാടാറുണ്ട് നമുക്ക് സങ്കടം തോന്നുമ്പോഴൊക്കെ മെലഡി ഗാനങ്ങള് കേൾക്കുകയും അതിൻ്റെ ആ അതിലേക്കിറങ്ങി ചെല്ലുകയും അതിൻറ്റേതായിട്ട് ചെറിയ ചെറിയ വരികളും മനസ്സില് ഹൃദ്യസ്ഥമാക്കുകയും അത് പിന്നീട് പാടുകയും ചെയ്യും അതിലൊരു മനസ്സിനൊരു വല്ലാത്ത ആശ്വാസമാണ് ലഭിക്കുന്നത് അല്ലാതെ സ്കൂളുകളിലും അങ്ങനെയൊന്നും പോയി പഠിക്കാനുള്ള സാഹചര്യം നമ്മുടെ വീടുകളില്ലാത്തതിനാല് സ്വന്തമായിട്ട് പാടും പിന്നെ മറ്റുള്ളവരുടെ പാട്ടുകള് കേള്ക്കാറുണ്ട് ഇഷ്ടമുള്ള പാട്ടുകൾ മറ്റുള്ളവര് പാടുന്നതും വളരെ ഇഷ്ടമാണ് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇടയിലുള്ള ഗാനാപ്ല ഇത് പിന്നെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് പാട്ട് മ്യൂസിക്ക് എന്നുള്ള ഒരു ക്ലാസ് ടൈം തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് മ്യൂസിക്ക് ടീച്ചര് നമ്മളെ ക്ലാ ക്ലാസ്സില് പാട്ട് പാടുകയും പാട്ട് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അതിനായിട്ടൊരു ബുക്ക് തന്നെ വച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാലങ്ങളിലൊക്ക അതൊക്കെ പോയി പഠിക്കുകയും ഇടയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോള് നമ്മുടെ മക്കളെ ഞങ്ങൾക്കോ പഠിക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങളുടെ മക്കളെ അതുകൊണ്ട് തന്നെ പിയാനോ വയലിൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാനായിട്ട് വിടുകയും അവരെ മുന്നോട്ട് വളർത്തിക്കൊണ്ട് വരുവാൻ ഉതകുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനും ഞങ്ങള് ശ്രമിക്കാറുണ്ട്